ആ എൻ്റെ കാരണവന്മാരിൽ നിന്ന് ഞാൻ ജീവിക്കുന്ന സ്ഥലം എന്ന് പറഞ്ഞത് പഴശ്ശിയാണ് അവിടെ ഏറ്റവും പ്രധാനപ്പെട്ട എല്ലാവർക്കും അറിയുന്ന കേരളത്തിൻ്റെ രാജാവായ കേരള വർമ്മ പഴശ്ശി തമ്പുരാൻ്റെ കൊട്ടാരമുള്ള സ്ഥലത്താണ് ഞാൻ താമസിക്കുന്നത് ഒരുപാട് കേട്ടറിവുകൾ പഴശ്ശിയെ കുറിച്ചുണ്ട് ബ്രിട്ടീഷുകാരോട് പോരാടിയതും അതേപോലെ തന്നെ ഒരുപാടൊരുപാട് നല്ല കാര്യങ്ങൾ ചെയ്തതും നമുക്ക് വേണ്ടി അദ്ദേഹത്തിൻ്റെ പ്രജകൾക്ക് വേണ്ടി ചെയ്ത കുറേ നല്ല കാര്യങ്ങളും ഞാൻ എൻ്റെ മുത്തശ്ശന്മാരിൽ നിന്നും മുത്തശ്ശിമാരിൽ നിന്നും ഒരുപാട് ഒരുപാട് കേട്ടിട്ടുണ്ട് അദ്ദേഹത്തോട് ഒരുപാട് ആരാധനയും ഉണ്ട് പഴശ്ശി തമ്പുരാൻ നേതാ അതേപോലെ തന്നെ വേറെ ഒരാൾ എന്ന് പറയുന്നത് വേറെ ഒരാൾ എന്ന് പറയുന്നത് പഴശ്ശി രാജാവിൻ്റെ അനിയനായ തമ്പുരാനെ കുറിച്ചും കുറേ കാര്യങ്ങൾ ഞാൻ കേട്ടിട്ടുണ്ട് വളരെ അല്ല അവ അവരുടെ രാജവംശത്തെക്കുറിച്ചും എല്ലാമെല്ലാമെല്ലാമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും അവർ ബ്രിട്ടീഷുകാരോട് ഒളിപ്പോര് നടത്തിയതും ആദ്യമായിട്ട് കേരളത്തിൽ ഗറില്ല വാർ യുദ്ധം നടത്തിയത് പഴശ്ശി രാജയാണ് പഴശ്ശി രാജയാണ് ഗറില്ലാ വാർ യുദ്ധത്തിന് നേതൃത്വം കൊടുത്തത് ഒളിപ്പോര് യുദ്ധം അതായത് ബ്രിട്ടീഷുകാരോട് ചെറുത്തു നിൽക്കാൻ വേണ്ടി അദ്ദേഹത്തിൻ്റെ സാമ്രാജ്യം വിട്ടിറങ്ങി എന്നിട്ട് ഒളിപ്പോര് ഒളിപ്പോര് യുദ്ധത്തിന് നേതൃത്വം കൊടുക്കുകയായിരുന്നു ചെയ്തിരുന്നത് ഒരു ധീരനായ ഒരു വ്യക്തി തന്നെയാണ് നമ്മുടെ നാട്ടിലെ പഴശ്ശിരാജ തമ്പുരാൻ പഴശ്ശിരാജ തമ്പുരാൻ എന്ന് പറയുന്ന കേരളവർമ്മ പഴശ്ശിരാജ വളരെ ഏറെ ധൈര്യശാലിയുമായ ഒരു വ്യക്തിയാണ് അദ്ദേഹത്തിൻ്റെ മരണം ഇന്നും ഒരു മിസ്റ്ററി ആയിട്ട് അതായത് ഒരു ആശ്ചര്യമായിട്ട് തന്നെ പു നിലകൊള്ളുന്നു